നമ്മൾ കല്യാണത്തിന് ആണ് കൂടുതൽ നൃത്തം ചെയ്യുക ഒപ്പന കാര്യങ്ങൾ എല്ലാം അല്ലാതെ നമ്മൾ വലിയ നൃത്തം ഇത് ആകുന്നില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇത് ഉണ്ട് ഇവന്റൊക്കെ വന്നപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ തലേദിവസം റിസപ്ഷൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തലയത്തെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഇത് ആകാറുണ്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ കൂടിയിട്ട് നമ്മുടെ പുരയിലെ മക്കളും അയൽവക്കത്തെ അതായത് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ കൂടിയിട്ട് നമ്മൾ ഡാൻസ് പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട് അല്ലാതെ നൃത്തത്തിന് വലിയ പങ്ക് വഹിക്കുക അങ്ങനെ നൃത്തം ആയിട്ട് അങ്ങനെ ഇത് ആക്കില്ല അറബന മുട്ട് ദഫ് മുട്ട് പിന്നെ ഒപ്പന അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് പിന്നെ അങ്ങനെ ഈ കല്യാണ പ്രോഗ്രാം പിന്നെ നമ്മുടെ എന്തെങ്കിലും പരുപാടിക്ക് അല്ലാതെ ആ പിന്നെ സ്കൂളിലൊക്കെ മക്കൾ ചെയ്യുന്നുണ്ട് ഈ കല ഉത്സവത്തിന് ഒക്കെ വേണ്ടിയിട്ട് മക്കൾ ചെയ്യും